പുസ്തകങ്ങൾക്ക് പുറമേ കൂടുതലായിട്ടും ന്യൂസ് പേപ്പർ ആണ് ഡെയിലി വായിക്കാറുള്ളത് അത് നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ എക്സ്പ്രസ്സ് ആണ് ഡെയിലി വായിക്കുന്ന ന്യൂസ് പേപ്പർ അതിനകത്ത് കുറച്ചുകൂടെ ജെന്യൂയിൻ ആയിട്ടുള്ളതും കാലിക പ്രസക്തിയുള്ളതുമായ ന്യൂസുകൾ ആണ് വായിക്കാറുള്ളത് കൂടുതലായിട്ടുള്ള നാഷണൽ പോളിസീസിനെ പറ്റി ഒക്കെ കൂടുതൽ അറിവ് ലഭിക്കാൻ നല്ലതാണ് ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്നതുകൊണ്ട് നമുക്ക് അക്കാദമിക്കൽ ആയിട്ടും കുറേ ബെനിഫിറ്റുകൾ ഉണ്ട് ഈ ആനുകാലിക സംഭവങ്ങളെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് അതുപോലെത്തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ളതും സ്പോട്ട് സ്പോട്ട് സംബന്ധം ആയിട്ടുള്ളതും എല്ലാവിധ ന്യൂസുകളും അതിൻ്റെ ഉള്ളിലുണ്ട് അതുപോലെ അറിവ് പകരുന്ന തലത്തിലുള്ള ന്യൂസും അതിൻ്റെ അകത്ത് കൂടുതൽ ആയിട്ട് ഉണ്ട്

ആ പുസ്തകങ്ങൾ എപ്പോഴും ഒരു ലിമിറ്റഡ് അറിവുകളേ തരുകയുള്ളൂ കാരണം പല പുസ്തകങ്ങൾ പല ടൈപ്പുകൾ ഉണ്ട് പക്ഷേ ന്യൂസ് പേപ്പറിൽ നമുക്ക് ഫാക്ടുവൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത് പുസ്തകങ്ങൾക്ക് നമുക്ക് നോവലും അതുപോലെ ഫിക്ഷനും അങ്ങനെത്തെ പല തരത്തിലുള്ള ഇത് നോളജ്ജുകൾ ലഭിക്കാറുണ്ട് ന്യൂസ് പേപ്പറിൽ ആണെങ്കിൽ നമുക്ക് നമ്മുടെ കാലാവസ്ഥയെപ്പറ്റി അറിയാൻ ആയിട്ട് സാധിക്കും അതുപോലെ എന്തെങ്കിലും ഫ്ലഡ്ഡിങ് പോലെ എന്തെങ്കിലും ഇഫക്റ്റുകൾ ഉണ്ടായതിനെപ്പറ്റി ഒക്കെ അറിയാൻ ആയിട്ട് ന്യൂസ് പേപ്പർ വഴി നമുക്ക് സാധിക്കും